ഹലോ ആരായിരുന്നു ആ മേടം ഇന്നലെ വിളിച്ച ആളല്ലേ ആ അപ്പം മേഡത്തിന് എങ്ങനത്തെ സ്ഥലമായിരുന്നു വേണ്ടത് സ്ഥലം മാത്രം മതി ആ അത് റോഡ് സൈഡ് ജംഗ്ഷനായ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ റോഡ് സൈഡിൻ്റെയോ അങ്ങനെ സൈഡിലായിട്ടൊക്കെയുള്ളത് റോഡ് സൗകര്യങ്ങൾ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണേങ്കി ല് ഒത്തിരി റോഡിൻ്റെ ജംഗ്ഷനിൽ എടുക്കാതിരിക്കുന്നതാണ് ഒത്തിരി പുകയും അതേപോലെ തന്നെ പൊല്യൂഷനൊക്കെ കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് അടുത്തുണ്ട് പക്ഷെ റോഡ് സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അകത്തോട്ട് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം പറയാം അതായത് അവിടെ വീടും സ്ഥലവും കൂടെ ഒരു എന്താണ് പറയുക ഒരു ഇതിലാണുള്ളത് ഒരുമിച്ചാണ് അത് മൊത്തത്തിൽ ഒരു ഇരുപത്തി അഞ്ചു സെൻ്റ് വരും അതിന് അവർ ഒരു സെൻ്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് മേഡത്തിൻ്റെ എങ്ങനെയാണ് മേഡത്തിന് ഇന്ന ബഡ്ജറ്റിനുള്ള അങ്ങനെ വല്ലതും ഉണ്ടോ ആ അങ്ങനെ വീട് ഇപ്പം രണ്ട് നില വേണമെന്നോ അതോ ഒറ്റ നില മതിയോ അങ്ങനെ പുതിയ മോഡേണായിട്ടുള്ള വീട് വേണോ അതോ കുറച്ച് പഴയത് അങ്ങനെ എന്തെങ്കിലുമുണ്ടോ

മൂന്ന് ബെഡ്റൂം ആണോ മൂന്ന് ബെഡ്റൂമോ ആ പിന്നെ മേഡം വേറെ എൻ്റെ ഞാൻ പറയുന്ന ഒരു കുന്നന്താനത്ത് ഒരു സ്ഥലമുണ്ട് അതായത് അവിടെ വീടും ഈ പറഞ്ഞത് പോലെ സ്ഥലം ഒരു നില വീടാണ് അതേപോലെ തന്നെ റോഡ് സൗകര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ പള്ളിയും സ്കൂളും അടുത്തില്ല അതൊരു പ്രശ്നമാണോ അങ്ങനെയാണെങ്കിൽ മേഡത്തിന് ചെങ്ങന്നൂർ ഒരു ഒരു സ്ഥലമുണ്ട് കറക്റ്റാണ് ഈ പറഞ്ഞത് പോലെ വെള്ളമുണ്ട് വെള്ളം കേറത്തില്ല പിന്നെ എന്താണ് പറയുക എല്ലാം നല്ല കാർഷിക ഗുണമുള്ള മണ്ണാണ് അപ്പോൾ മേഡത്തിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും വിത്തിട്ട് കിളപ്പിച്ചാലും കിളിർക്കുന്ന രീതിയിലുള്ള നല്ല മണ്ണാണ് മഴ കിട്ടുന്ന സ്ഥലമാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ വീട് ഒറ്റ നില വീടാണ് നാല് റൂമ് നാല് ബെഡ്റൂമുള്ള ഒരു ഡൈനിങ്ങ് റൂമും ഒരു കിച്ചണുമുള്ള വീടാണ് ആ സ്ഥലം മേഡത്തിന് ഓകെ ആണല്ലോ അത് അതുവായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ അത് സെൻ്റ് ചോദിക്കുന്നത് മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് കുഴപ്പമില്ലല്ലോ ആ അപ്പോൾ നമുക്ക് അത് ആ അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് അതൊക്കെ നമുക്ക് ആ മേഡം നാളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലവും വീടും കൊണ്ട് കാണിക്കാം മേഡത്തിനെ ഓക്കെ മേഡം താങ്ക് യു